പണ്ടെനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു സ്റ്റാമ്പുകളെല്ലാം ഒന്നിൽ ശേഖരിച്ച് വെക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു അങ്ങനെ എൻ്റെ കയ്യിലിപ്പം ഒരു പത്ത് അൻപതിലേറെ സ്റ്റാമ്പുകളുണ്ട് അതാണേൽ ഈ കോയിൻസ് അഞ്ചുരൂപ കോയിൻസൊക്കെ ഞാനാണെങ്കിൽ ഇങ്ങനെ ശേഖരിച്ച് വെക്കുന്ന ഒരു സ്വഭാവമുണ്ട് അതൊക്കെ എൻ്റെ കയ്യിലുണ്ട് അത്പിന്നെ കുഞ്ഞു കുഞ്ഞു കല്ലുകള് ഡിസൈൻ കല്ലുകൾ പലതരത്തിലുള്ള കല്ലുകൾ അതെല്ലാം ഞാനിങ്ങനെ ശേഖരിച്ച് സൂക്ഷിച്ച് വയ്ക്കാറുണ്ട് അതെല്ലാം എൻ്റെ കയ്യിൽ ഒരു ശേഖരണം പോലെ ഉണ്ട്